ഇന്ത്യയിൽ കുറെ വളരെയേറെ പ്രശസ്ത നൃത്ത ശൈലികളുണ്ട് അതീ അതിൽ വളരെ കേരളത്തിൽ പ്രധാനപ്പെട്ടത് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒന്നാണ് കഥകളി രണ്ട് രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടവാണ് കഥകളി എന്ന് പറയുമ്പോൾ ഒരു വളരെ ഒരു ഒരു കുറെ ഡിസൈനൊക്കെയുള്ള കോസ്റ്റ്യൂമൊക്കെ എല്ലാം ഇട്ട് മുഖത്ത് മേക്കപ്പൊക്കെ തേച്ച് നമ്മളാണെങ്കിൽ കഥകളി എന്ന് പറയുമ്പം ഒരു പേരില് തന്നെ ഉണ്ടത് എന്നുവെച്ചാൽ ഒരു ഒരു കഥ നമ്മള് നൃത്തത്തിലൂടെ അവതരിപ്പിക്കുന്നു അപ്പോൾ ഇതില് കൂടെ മുഖത്ത് കുറെ എക്സ്പ്രഷൻസൊക്കെ ഉണ്ടാകും പലതരം കര കഥകളൊക്കെ കഥകളിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും പ്രശസ്ത ആളുകളൊക്കെ പറയുകയാണെങ്കിൽ അതിൽ ഒന്ന് ഗുരു ഗോപിനാഥ് പിന്നെ കലാമണ്ഡലം ഗോപി ഇവരൊക്കെ വളരെ പ്രശസ്തമായ ആൾക്കാരാണ് കഥകളി അവതരിപ്പിക്കുന്ന ആൾക്കാരാണ് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഒരു അതിന്റെതായ ഒരു ശൈലി ഉള്ളൊരു നൃത്ത ശൈലിയാണ് മോഹിനിയാട്ടം അപ്പോൾ ഇത് ഇത് മിക്കപ്പോഴും അവതരിപ്പിക്കുന്നത് സ്ത്രീകളാണ് അവരാണെങ്കിൽ ഒര് ഡിവോഷൻ ആണ് മെയിനായിട്ട് ഒരു സ്നേഹത്തിൻ്റെയും ഒരു ഡിവോഷൻ്റെ ഒക്കെ ഒരു രീതിയിലാണ് ഇവര് അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രശസ്ത ആള്ക്കാരെന്നൊക്കെ പറയുമ്പോൾ ഭാതിജിവാജി സോണാൽ മൻസിംഗ് എനിക്ക് വളരെ താല്പര്യം ഉണ്ട് നൃത്തങ്ങൾ കാണുന്നതിനായിട്ട് ഒക്കെ വളരെ ഞാന് നൃത്തം കളിക്കണ കൂട്ടത്തിലൊള്ളൊരു വ്യക്തി കൂടിയാണ് അപ്പോ പിന്നെ ഉള്ളത് ഇന്ത്യയിൽ അല്ലാത്തത് കേരളത്തിലൊഴിച്ച് ബാക്കി ഇന്ത്യയിലൊക്കെ ഉള്ളതാണ് ഭരതനാട്യം കഥക്ക് പിന്നെ ഒഡീസി കുച്ചിപ്പുടി പിന്നെ സത്രീയ ഇവരൊക്കെ ഇതൊക്കെ ഇന്ത്യയിലൊക്കെ കുറെ കുറെ കൾച്ചേഴ്സിൻ്റെ ഇവർക്ക് ഇവരുടേതായ ഒരു നൃത്ത ശൈലികളൊക്കെ ഉണ്ട് പിന്നെ ഫോക്ക് ഡാൻസൊക്കെ പറയുകയാണെങ്കിൽ ബാന്ഗ്ര ഗർബ ലവാണി കോലി ദാണ്ടിയ പിന്നെ അല്ലാത്ത കണ്ടംമ്പററി ആയിട്ട് ഡാൻസ് കളിക്കുന്നവരായിട്ടുള്ളവര് മാധുരി ദീക്ഷിത് പ്രഭുദേവ ശ്യാമദവാർ ഇവരൊക്കെ ഇവരുടെ ഡാൻസിന് വേണ്ടി അറിയപ്പെട്ടത് ഉള്ളവരാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇവരെ മിക്കയിടങ്ങളും പേരൊക്കെ ചോദിച്ചോ ഇവർ ആരാന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചർ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ഡാൻസൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കാനും പറ്റും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഹെറിറ്റേജ് ഇത് പ്രിസർവ് ചെയ്ത് വെയ്ക്കാനും പിന്നെ നടത്തിക്കൊണ്ട് കൊണ്ട് പോവാനായിട്ട് സാധിക്കും ഈ ഡാൻസൊക്കെ ഇന്ത്യയില് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഈ ഡാൻസ് വളരെ ഈ ഡാൻസുകളൊക്കെ വളരെ പ്രശസ്തമാണ് പിന്നെ പിന്നെ ഒക്കെ ഉള്ളത് ഭരതനാട്യം ഭരതനാട്യമൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള തമിഴ്നാട്ടിൽ നിന്ന് വളർന്ന് വന്ന ഒരു ശൈലിയാണ് ഇതൊക്കെയാണെങ്കിൽ മുഖത്തെ എക്സ്പ്രഷൻസും പിന്നെ കാല് കൊണ്ടൊള്ളൊരു നൃത്തം പിന്നെ ഇതില് പ്രശസ്തായായിട്ടുള്ളൊരു രുക്മിണി ദേവി അരുന്തലേ സോണാൽ മൻസിംഗ് ഇവരൊക്കെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് പിന്നെ കഥക് കഥകളി പോലെ തന്നെ ഒരു നൃത്തത്തിലൂടെ ഒരു കഥ അവതരി അവതരിപ്പിക്കുന്ന ആള് പിന്നെ പറയാണെങ്കിൽ ഒഡീസി ഒഡീസി എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ ആട്ടത്തിലൂടെയും പിന്നെ അതിനൊക്കെ ഒരു നിൽക്കേണ്ട ഒരു രീതിയുണ്ട് അതൊക്കെ വളരെ മനോഹരമാണ് പലപ്പോഴും ഈ ക്ഷേത്രങ്ങലിലൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത് ഇതിലൊക്കെ വളരേ ഫേമസായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള സന്ഞ്ചുക്ത പനിഗൃഹി കുച്ചിപ്പുടി ഇവരൊക്കെയാണ് പിന്നെ പിന്നേന്ന് പറയുമ്പോൾ കുച്ചിപ്പുടി കുച്ചിപ്പുടി എന്ന് പറയുമ്പോൾ കഥകളിയുടെ ഒരു കഥകളി പോലെയല്ല അതിൻ്റെ ഒരു സ്റ്റൈലിൽ ഉള്ള ഒരു കഥേനെ ഡാൻസിലൂടെ അവതരിപ്പിക്കുന്നതാണ് പിന്നെ മണിപ്പൂരിയെ മണിപ്പൂരിയൊക്കെ ക്ഷേത്രത്തിലാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഇതിൽ പ്രശസ്തമായിട്ടുള്ള ഖനാശ്യം ശർമ്മ ബിംഭാവതീ ദേവി ഇവരൊക്കെ വളരെ പ്രശസ്തരായ ആൾക്കാരാണ് പിന്നേന്ന് പറയുമ്പോൾ സത്രിയ സത്രിയാന്ന് പറയുമ്പോൾ ഇതൊക്കെ മൊണാസ്ട്രിയിലൊക്കെ ചെയ്യണ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഡാൻസാണ് പിന്നെ ഫോക്ക് സ്റ്റൈലായിട്ടുള്ളത് അത് ഈ ഭങ്കര ഇതൊക്കെ കളിക്കുന്നത് പലപ്പോഴും ഈ അന്ന് വെച്ചാൽ കൃഷിക്കാരൊക്കെ ച് പലപ്പോഴും ചെയ്യണ ഒരു കൂട്ട് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അന്നേ എക്കെ ഹാർവസ്റ്റ് സീസണൊക്കെ വരുമ്പോൾ ചെയ്യണ ഒരു ഡാൻസാണ് ബാംഗ്ര പിന്നെ ഗർഭാന്നൊക്കെ പറയുമ്പോൾ ഒരു ചുറ്റും നടത്തുന്ന ഒരു ഒരു നൃത്തമാണിത് പിന്നെ കൈക്കൊട്ട് കൈക്കൊട്ട്ളെക്കെ ഉണ്ട് ഗർബയിൽ പിന്നെ ലവാണി ലവാണി എന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു അനുഭവമാണ് തകില് പുകിൽ ഒരു ഒരു ഡ്രമ്മില് കൊട്ടിയിട്ടൊക്കെ ചെയ്യണതാണ് ഈ ലവാണി പിന്നെ കോലി കോലി എന്ന് പറയുമ്പോൾ ഈ മീൻ പിടുത്തക്കാരൊക്കെ മഹാരാഷ്ട്രയിൽ വന്ന് പിന്നെ മീൻ പിടുത്തക്കാരൊക്കെ നടത്തുന്ന ഇപ്പോൾ മിക്കപ്പോഴും സ്ത്രീകളാണിത് ചെയ്യാറുള്ളത് പിന്നെ ദാണ്ടിയ ദാണ്ടിയ വടികളുപയോഗിച്ചിട്ടാണ് ദാണ്ടിയ ചെയ്യുന്നത് ഗുജറാത്തിൽ നിന്നൊക്കെ വളർന്ന് വന്നൊരു ഒരു നൃത്ത ശൈലിയാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്ത്യയുടെ നൃത്ത ശൈലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ള കാര്യങ്ങൾ